ഞങ്ങളുടെ ഈ പ്രദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രളയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരിതവോ അനുഭവപ്പെടാത്ത ഒരു സ്ഥലമാണ് അത് പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ഒരു പ്രളയം ഉണ്ടായിട്ടേ ഞങ്ങളുടെ ഈ വെള്ളം കേറാത്ത ഈ സ്ഥലത്ത് വരെ വെള്ളം കയറി

ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ ഇലക്ട്രോണിക് ഐറ്റവും അതും ഇതും എല്ലാം നമ്മുടെ നഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ശരിക്കും അവിടെ നിന്ന് ഞങ്ങളെ ഞങ്ങളെ ഗവർമെൻറ് പരമായിട്ട് ഞങ്ങളെ മറ്റേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി അവിടെയും ഞങ്ങൾ ഒത്തിരി അനുഭവങ്ങ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ചു എങ്കിലും അവർ ശരിക്കും ഗവർമെൻറ് പരമായി നല്ല ഹെല്പ് ചെയ്തു ചെയ്തു അതിൻ്റെ അതിൽ കൂടെ കുറച്ചു ആശ്വാസം കിട്ടി ആശ്വാസം കിട്ടിയെങ്കിലും ഞങ്ങളെ കുറച്ചു ദിവസം രണ്ടാഴ്ചയോളം ഞങ്ങളെ അനുഭവിച്ച് അനുഭവിക്കേണ്ടി വന്നു പിന്നെ അതൊക്കെ പിന്നെ ഫുഡ് പരമായിട്ട് നമുക്ക് കുറച്ച് സഹി ഞങ്ങൾ ശരിക്കും സഹിച്ചു സഹിച്ച് കിടന്ന് കഴി ഇരുന്ന് എന്നിട്ടേ ആഹാരപരമായിട്ടും വസ്ത്രപരമായിട്ടും ഒക്കെ നമുക്ക് ഈ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് സഹായമായിട്ട് എത്തിച്ചു അത് എല്ലാം ആൾക്കാരൊക്കെ സ്വീകരിച്ചു ഞങ്ങൾ കുറച്ച് ആ വഴി നമ്മൾ ഹാപ്പി ആയി എങ്കിലും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ മേലാത്ത ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ആ പ്രളയത്തിൽ ഞങ്ങൾ അനുഭവിച്ചത്